ഞങ്ങളുടെ പ്രദേശത്ത് ഭിന്നശേഷിക്കാരായ കായികതാരങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം ന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നേ അവർ ആ മേഖലയിൽ ഉയർന്ന് വരാൻ കാരണം നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം കൊണ്ടാണ് നമ്മുടേ നാട്ടുകാർ കൊടുക്കുന്ന പ്രോത്സാഹനം കൊണ്ടാണ് അവർക്കായിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഇവിടേ ഒരുക്കിയിട്ടുണ്ട് അവർക്കായിട്ട് തന്നേ ഒരു ടീം തന്നേ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കൂടെ കളി ഇവിടുത്തേ ആൾക്കാരുടെ കൂടേ കളിക്കാനോ അതുപോലെ തന്നേ അവർ തന്നേ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഒക്കേ സഹായിക്കുന്നുണ്ട് ഒരു ഇപ്പം വീട്ടിൽ അടഞ്ഞു കൂടി ഇരിക്കുന്നവരെല്ലാം കൊണ്ട് വന്ന് ക ഇവിടേ കാണാനും കളി കാണാനും അതുപോലെ തന്നേ അവരെ കൊണ്ട് എന്ത് എന്താണ് അവർക്ക് ആഗ്രഹം അത് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ സൗകര്യം ഒരുക്കി കൊടുക്കൽ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വന്ന് കളി കാണാനും അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് ചെയ്ത് കൊടുക്കലും ഒക്കേ ചെയ്യുന്നുണ്ട്